ഞങ്ങളുടെ സംസ്ഥാനത്ത് നിന്ന് ഒരാൾ കളിക്കാൻ പോയപ്പം അയാൾക്ക് എന്തോ ഒരു കായിക വിനോദമായിട്ടുള്ളൊരു പരിക്ക് പറ്റിയായിരുന്നു അതിന് ശേഷം അയാൾ അപ്പോഴേ എന്തോ ഗ്രൗണ്ടിലേക്ക് മറ്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സും കൊണ്ട് ഡോക്ടേഴ്സും ഒക്കെ വന്ന് അവിടെ വച്ച് തന്നെ ചികിത്സിച്ചു പിന്നെ അതിന് ശേഷം വലിയ ഒരു മുറിവ് ആയപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് പോയി പിന്നെ അതിന് ശേഷം മൂന്ന് നാല് ദിവസം കളിച്ച് എന്തോ ഹോസ്പിറ്റലിക്കണ റിക്കവറായി വീണ്ടും കളിക്കാൻ ഇറങ്ങി അടുത്ത കളി പിന്നെ കളിക്കാൻ ഇറങ്ങി അയാൾക്ക് വീണ്ടും ചെറിയ ഒരു പരിക്ക് പറ്റുകയാണ് ചെയ്തത് അതിനു ശേഷം അയാൾ കളി കളിക്കാൻ ഇറങ്ങിയില്ല എന്നല്ല അയാൾ കളിക്കാൻ വീണ്ടും ഇറങ്ങി കുറച്ച് നാൾ റിക്കവറായിട്ട് വീണ്ടും കളിക്കാൻ ഇറങ്ങി ഇങ്ങനെ സംസ്ഥാനത്തേക്ക് എൻ്റെ സംസ്ഥാനത്തെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ കളിക്കാൻ ഇറങ്ങി അയാൾ ഇങ്ങനെ കളിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു നാൽപ്പത്തി അഞ്ചാമത്തെ സെക്കൻ്റ് മിനുട്ടിൽ അയാൾക്ക് കുറെ നേരം കളിച്ചു കൊണ്ടിരുന്നപ്പോൾ അയാൾക്ക് ഒരു പരിക്ക് പറ്റി ഒരു പരിക്ക് പറ്റി ചെറിയ ഒരു പരിക്കായിരുന്നു അത് ജെസ്റ്റ് ഒരു സ്പ്രെ കണക്കത്തെ ഒരു സാധനം ഇങ്ങനെ അടിച്ച് വേദനയൊക്കെ ഇങ്ങനെ മാറുന്ന ഒരു സാധനം ഇങ്ങനെ അടിച്ച് അത് ഇങ്ങനെ വേദനയൊക്കെ മാറി അങ്ങനെ അങ്ങു പോയി അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പിന്നെ ഒരു വലിയ മുറിവ് അതോ വലിയ മുറിവോ കാര്യങ്ങളൊ ഒക്കെ വരികയാണെങ്കിൽ പിന്നെ അയാൾക്ക് പിന്നെ ഇങ്ങനെ